നൃത്തം ഒരു ഹോബിയായിപ്പോയി തുടരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ സമൂഹത്തിൽ ധാരാളം വെല്ലുവിളികൾ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഒന്നാമത്തെ വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഓൾക്ക് സ്വതന്ത്രമായി നൃത്തം ചെയ്യാൻ സാധിക്കുകയില്ല കാരണം പലരീതിയിലുള്ള സാമൂഹിക ഇപ്പോൾ സിൻമാലോകംതന്നെ ധാരാളം പീഡനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും നേരിടുന്നുണ്ട് പിന്നെ കൃത്യമായി ഇത് പഠിപ്പിക്കാനുള്ള ആൾക്കാർ നൃത്തം പഠിപ്പിക്കാനും അതിനുള്ള ആൾക്കാരും ഇല്ലാത്ത ഒരു കാര്യങ്ങളാണ് പിന്നെ അതിൻ്റെ മേക്കപ്പ് സാധനം വളരെ കോസ്റ്റ്യുമ്സും എല്ലാം വളരെ കൂടുതലാണ്

ഇങ്ങനെ ധാരാളം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത് അപ്പം വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഒരു നൃത്തം അതിൻ്റെ സ്റ്റെപ്സ് ഇടാനും പഠിക്കാനും ശരിക്കും ഇപ്പം നൃത്തം പഠിക്കാനായിട്ട് ക്ലാസ്സിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനും ഇപ്പം കൂടുതൽ സിനിമാറ്റിക് ഡാൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ക്ലാസ്സിക്കൽ ഡാൻസ് ഒക്കെ പഠിക്കാനുള്ള പഠിപ്പിക്കാനുള്ള അധ്യാപകരുടെ കുറവ് പിന്നെ നൃത്തത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന അധ്യാപകരും കുറവാണ് ഇങ്ങനെയുള്ള ഒരു നൃത്തങ്ങളാണ് നൃത്തത്തിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ സ്ത്രീകളിൽ കൊടുക്കേണ്ടത് ആവശ്യമാണ് നൃത്തം ചെയ്യുന്ന വ്യക്തിയെ സമൂഹം പിന്തുണക്കുക സമൂഹം അതിന് വേണ്ടി പ്രോത്സാഹനങ്ങൾ കൊടുക്കണം ഇപ്പഴത്തെ ഭാരിച്ച ഭാരമേറിയ ചെലവ് അതിൻ്റെ കോസ്റ്റ്യൂമ്സിൻ്റെയൊക്കെ ചെലവ് നമുക്കൊരു അഫോഡ് ചെയ്യാൻ നമുക്കത് നിലനിർത്താൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നൃത്തലോകത്ത് പുതിയ പുതിയ പുതിയ ആൾക്കാർ പ്രാവീണ്യം ലഭിച്ച ആൾക്കാർ വന്ന് നൃത്തത്തെ നൃത്തത്തെ പഠിപ്പിച്ച് ഒരു കുട്ടികളെ ധാരാളം കലാരൂപങ്ങൾ വളർത്തിയെടുക്കുന്നതിന് നമുക്ക് സാധിക്കുന്നു